വ്യാവസായ സംഘടനകൾ വളരെ അധികം വികസനത്തെ സഹായിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഇന്ന് നമ്മളുള്ളത് കാരണം ഇന്ത്യ എന്നതൊരു ഡെവലപ്പിങ് കൺട്രി ആണ് പൂർണ്ണമായിട്ടും ഡെവലപ്പ് ആയിട്ടില്ലെങ്കിലും ഡെവലപ്മെൻ്റിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നതാണ് ഏകദേശം നൂറ്റി നാൽപ്പത്തിമൂന്ന് കോടിയോളം മനുഷ്യർ ഇവിടെ താമസിക്കുന്നുണ്ട് എല്ലാവർക്കും ഒരുപോലെ ഇവിടെ വിദ്യാഭ്യാസത്തിന് അവകാശം ഉണ്ടെങ്കിലും എല്ലാവർക്കും പൂർണ്ണമായിട്ടത് കിട്ടുന്നില്ല അവനവൻ്റെ സാഹചര്യം മൂലം ആയിരിക്കാം മറ്റു പല കാരണങ്ങളും കൊണ്ടായിരിക്കാം അത് എല്ലാവരിലേക്കും എത്തിച്ചേരുന്നില്ല ഒരിക്കലും നല്ലൊരു വിദ്യാഭ്യാസം ഇല്ലാത്തൊരു വ്യക്തിക്ക് നല്ലൊരു ജോലി മുന്നോട്ട് ചിന്തിക്കാൻ കൂടി പറ്റത്തില്ല അവനവൻ്റെ കഴിവുണ്ടെങ്കിൽക്കൂടിയും കയ്യിൽ പണമില്ലാത്തതു കാരണം മുന്നോട്ട് നല്ലൊരു ജോലിയിൽ എത്തിച്ചേരാൻ പറ്റില്ല അങ്ങനെതന്നെ എന്താക്കും അവരുടെ കുടുംബവും കാര്യങ്ങളും എല്ലാം ഒരേ നിലയിൽ പോവും ഈ അവസരത്തിൽ പോവർട്ടി എന്ന ഒരവസ്ഥയിലേക്ക് എത്തിപ്പെടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് സർക്കാർ വ്യവസായ സംഘടനകളെ വളരെ അധികം സഹായിക്കുന്നത് കാരണം ഓരോ വ്യാവസായ സംഘടനകളുണ്ടാവുംതോറും കൂടുതൽ തൊഴിലവസരങ്ങളാണ് അവിടെ ഉണ്ടാവുന്നത് കൂടുതൽ പേർക്ക് ജോലി ലഭിക്കും അവരുടെ കുടുംബം മെച്ചപ്പെട്ട രീതിയിലേക്ക് വരും ഇതിനുവേണ്ടി സർക്കാർ ചെയ്യുന്നത് എന്താണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ തുക തിരിച്ചടവിലും അതുപോലെത്തന്നെ പലിശ രഹിത വായ്പകളും കൂടുതലായിട്ട് നൽകും ഓരോ പദ്ധതികൾ പ്രകാരം ചിലതിൽ തിരിച്ചടവുണ്ടാവില്ല ഡെവലപ്മെൻ്റ് മാത്രം മുഖ്യം മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കും അങ്ങനെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ പേർക്ക് തൊഴിലവസരങ്ങൾ ശ്രദ്ധിക്കാൻ പറ്റുകയും എല്ലാവർക്കും മെച്ചപ്പെട്ട രീതിയിലുള്ളൊരു ജീവിതം മുന്നോട്ട് നയിക്കാൻ സാധിക്കുകയും ചെയ്യും